ആ ഞാൻ പരീഷിച്ച് നോക്കിയതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു പാചകവിധി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഉപ്പച്ചി ഇതുപോലെ പൊറോട്ട ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽനിന്ന് അതൊക്കെ കണ്ട് പഠിച്ച് എൻ്റെ ഉപ്പച്ചി ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് പഠിച്ച് ഇങ്ങനെ എൻ്റെ കല്യാണം കഴിച്ച വീട്ടിൽ പോയിട്ട് അതൊന്ന് ചെയ്യാൻ നോക്കി പക്ഷെ എനിക്കതിനൊന്നും കഴിഞ്ഞില്ല കാരണം ഉപ്പച്ചി ഉണ്ടാക്കുന്ന അതേ പോലെ തന്നെ ഈ പൊറോട്ടയ്ക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു പക്ഷെ എങ്ങനെയായാലും എനിക്ക് ആ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഒരുപാട് ആലോചിച്ചു അതുപോലെത്തന്നെ ഉപ്പാക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെ എന്തൊക്കേ ഇതിൽ വേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണ്ടതൊക്കെ വീണ്ടും ഞാൻ ഒന്നുകൂടെ ചോദിച്ചിട്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ ഞാൻ എങ്ങനെ ചെയ്താലും ഇതിൻ്റെ കൂട്ടോ കാര്യങ്ങളോ ഒന്നും ക്ലിയർ ആയില്ല അപ്പം ഞാൻ ഒരുപാട് ശ്രമിച്ചുനോക്കി ഉണ്ടാക്കാനൊക്കെ അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ ഒരു പൊറോട്ട രൂപത്തിൽ വന്നില്ല അവസാനം ഞാൻ പൊറോട്ട രൂപത്തിൽ വരാത്തതിന് എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായി കാരണം സാധനം ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മളിത് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടായൊരു പ്രയാസം ചെറുതൊന്നും അല്ല കാരണം സാധനങ്ങൾ മിസ്സ് ഒരുപാട് നഷ്ടപ്പെട്ടുപോയി പിന്നെ അതിൽ വെള്ളം ഇത്തിരി കൂടി പിന്നെ അത് മാത്രമല്ല പിന്നെ അതിനുള്ള ചേരുവകളൊക്കെ പല പല രീതിയിലും ഒന്നും കറക്റ്റ് ആയില്ല ഒന്നും ശരിയായില്ല അങ്ങനെ പൊറോട്ട ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ അതെന്തോ ഒരു ഗോതമ്പ് ചപ്പാത്തി മോഡൽ ആയിട്ട് വന്നു അപ്പോൾ എനിക്ക് ഞാൻ ആ ഒരു പൊറോട്ട ഉണ്ടാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം